ഇപ്പോൾ എൻ്റെ പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും മൂന്ന് ഹോസ്പിറ്റലുകളാണ് മെയിനായിട്ട് ഉള്ളത് മെഡിക്കൽ കോളേജ് രൂപത്തിൽ ഉള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടെണ്ണത്തിലാണ് നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ കുറച്ച് അത്യാവശ്യം ആയിട്ട് വേണ്ടി വരിക ചില ചിലപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉണ്ട് നമുക്ക് ഇവിടെ തന്നെ അടുത്ത് പക്ഷേ അവിടെയൊക്കെയെന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിലൊക്കെ ഡോക്ടർമാരുടെ അനാസ്ഥ അനാസ്ഥ മൂലം നമുക്ക് ആൾക്കാരും അതായത് നമ്മുടെ പല രോഗികൾ ഒക്കെ മരിക്കുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും അങ്ങോട്ടേക്ക് ഒക്കെ പോകാൻ ഭയങ്കര മടിയും കാര്യങ്ങളുമൊക്കെയാണ് അപ്പം നമ്മൾ കൂടുതലായിട്ടും ന നമ്മൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് ഇപ്പം അവിടെയാണെങ്കിൽ നല്ല രീതിയിലുള്ള ചികിത്സയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കാം നമുക്ക് ഇപ്പം എന്തിനു പോയി കഴിഞ്ഞാലും നമുക്ക് എന്ത് ഇപ്പം ഒരു ടെസ്റ്റ് എടുക്കണേ നമുക്ക് പുറമേ പോയിട്ട് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരില്ലേ നമുക്ക് ആ ആശുപത്രീൻ്റെ ഉള്ളിൽ തന്നെ നമുക്കെല്ലാ കാര്യങ്ങളും ചെയ്യാം നമുക്ക് ഒരു സ്കാൻ ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും ആശുപത്രിയിൽ തന്നെയുണ്ട് അപ്പം നമുക്ക് കൂടുതലായിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് പക്ഷേ അവിടെയൊക്കെ നല്ല രീതിയിലുള്ള കാശ് ചിലവിൻ്റെ കാര്യത്തിൽ ഒക്കെ കൂടുതലാണ് പിന്നെ അപ്പം അതു മാത്രമേ പ്രശ്നമുള്ളൂ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല